ചെടികളെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ബോഗൺവില്ലകളാണ് കൂടുതൽ ഞാൻ നടുന്നത് എനിക്കതാണ് കൂടുതൽ ഇഷ്ടം ആദ്യമൊക്കെ റോസ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബോഗൺവില്ലയിലാണ് പലതരത്തിൽ ഉള്ള ബോഗൺവില്ലകൾ കടലാസ് പൂക്കൾ ഉണ്ട് എന്റെ അടുത്ത് ചട്ടിയിലൊക്കെ നട്ട് അടിപൊളിയാക്കി വച്ചിട്ടുണ്ട് പിന്നേ വള്ളിച്ചെടികളെന്നു പറയാൻ ഏതാണ് മണിപ്ലാന്റ് മണിപ്ലാന്റ് ഉണ്ട് പിന്നെ ഇങ്ങനെ ഓടിന്റെ പുറത്തൊക്കെ കയറുന്നത് ഒരു ചെടിയില്ലേ അതിന്റെ പേര് അത്ര ഓർമ്മ വരുന്നില്ല ഒരു സീസണിൽ മാത്രമേ പൂവുണ്ടാവുകയുള്ളൂ അത് അതുണ്ട് പിന്നെ മെയിനായിട്ടുള്ളതെന്നു പറഞ്ഞാൽ ബോഗൺവില്ല തന്നെയാണ് കുറേ ചെടികളുണ്ട് എന്നാലും ബോഗൺവില്ലകൾ കട്ട് ചെയ്ത് അതാവുമ്പം ആറുമാസം പോകുമായിരിക്കില്ലേ അതിൽ അപ്പം അധികം ശുശ്രൂഷ അധികം വേണ്ടാത്തൊരു ചെടിയാണ് ബോഗൺവില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നടുന്നതിനാണ് ഇഷ്ടം പ്രത്യേകിച്ച് എന്റെ ഹസ്ബന്റ് ഒരു ഗാർഡനർ ആയതുകൊണ്ട് ചെടികൾ സംരക്ഷിക്കുന്നതിൽ എനിക്കും ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട് റോസും ബിന്ദി ബിന്ദിപ്പൂക്കൾ പലതരത്തിലുള്ള ബിന്ദികളുണ്ട് റോസുണ്ട് ഇതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം